ജനിച്ച കുട്ടികൾക്ക് കൃത്യസമയത്ത് എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂർ ഇടവിട്ട് എന്തോ പാൽ കൊടുക്കണം പിന്നെ അവർ കരയുമ്പോൾ എടുത്തുകൊണ്ട് നടക്കണം അവർക്ക് കറക്ടായിട്ടുള്ള വിശപ്പിനുള്ള സംഭവങ്ങൾ ചെയ്തു പിന്നെ അവർക്ക് പറ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കെന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി നോക്കി ദിവസത്തിലൊരു നേരം കുളിപ്പിക്കുകയോ ദേഹം തുടച്ചെടുക്കുകയോ എന്താണെന്ന് വച്ചാൽ ചെയ്യണം അധികം തണുപ്പൊന്നും ഇല്ലാതെ അവരെ പൊതിഞ്ഞ് വെക്കണം അപ്പോഴവർ കംഫർട്ടബിളായിട്ട് ഇരിക്കത്തുള്ളു പിന്നെ കരയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കെയറ് കൊടുക്കുക കുഞ്ഞു കുഞ്ഞു പനിയൊക്കെ വന്നാൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക അധികം ഹാർഷായിട്ടുള്ള എൻവയോണ്മെൻ്റ്സിൽ ഒന്നും അവരെ ഇറക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഭക്ഷണക്രമം ആദ്യത്തെ ഒരു ആറു മാസം അമ്മയുടെ പാൽ തന്നെയായിരിക്കും പിന്നെ പയ്യെ പയ്യെ സോളിഡ് ഫുഡ്സ് കൊടുത്ത് കൊടുത്ത് ഒര് ഒരു വയസ്സെത്തുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പയ്യെ അധികം എരിവൊന്നുമില്ലാതെ കൊടുത്ത് തുടങ്ങാം